പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സയൻസ് എക്സിബിഷന് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു അഞ്ചാം ക്ലാസിലങ്ങനെ പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു ബലൂൺ കാർ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ കുറച്ച് എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ബലൂൺ കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു ഓർമയിലുള്ളത് സയൻസ് എക്സി എക്സിബിഷന് ഒരു തവണ എങ്ങാനെ ബലൂൺ കാർ ഉണ്ടാക്കി അങ്ങനെ പോയിട്ടുള്ളൂ പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഇത് ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ സ്കൂളിലാകുന്ന സമയത്ത് എ കുറെപ്പേർ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വലിയ ഒരു ഹാളിലായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാകും എല്ലാവരും അവിടെ നിന്നിട്ട് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ഈ എക്സിബിഷൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകും എല്ലാരും ലൈ നിര നിരയായിട്ട് ഇങ്ങനെ കണ്ട് പോകും നമ്മളെക്കാളും വലിയ ചേച്ചിമാരും ഏട്ടന്മാരും അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും അവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ഓ ഇങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സയൻസ് എക്സിബിഷൻ്റെ ഒരു ഓർമ എന്ന് പറയുന്നത് പിന്നെ കോളേജുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടട്ടില്ല പിന്നെ സ്കൂളിലായിരുന്നു എനിക്ക് ഏറ്റവും ഓരോർമ എല്ലാ വർഷവും ഇതിങ്ങനെ സയൻസ് എക്സിബിഷൻ വരുമ്പോൾ നമുക്ക് ഓ ഇന്നു സയൻസ് എക്സിബിഷൻ ആണ് ഇന്ന് കാണാൻ പോകണം ഇന്ന് കുറെ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ എല്ലാവരും കൂട്ടുകാരൊക്കെ കൂടി പോയി കാണും ഒത്തിരിപ്പേർ ഉണ്ടാകും ഓരോരുത്തരും അവരവരുടെ ബുദ്ധിയിൽ ഓരോന്നും ചെയ്തിട്ടൊക്കെ ഉണ്ടാകും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും അങ്ങനെ